ഹലോ സാർ നമസ്ക്കാരം സാറേ അതെ അതെ അതെ സാറേ പറ ആ ആ സാറേ മറ്റേ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലേ സാറേ ആ

അ ആ

അതെ മൊത്തം എല്ലാ കമ്പനികളൂടെ എൺപത്തഞ്ച് സ്റ്റാഫുണ്ട് ഇവിടെ ആ

ആ ആ തീർച്ചയായിട്ടും സാറേ അതിൻറ്റകത്ത് നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി അല്ലേ വെച്ചിരിക്കുന്നത് സാറേ അതെ ഇരുപത്തി അഞ്ചാം തീയതി എൻറ്റടുക്കെ മൂന്ന് പേർ അവധി ചോദിച്ചിട്ടുണ്ട് സാറേ അല്ലാ അല്ല സാറേ അവർ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഞാനപ്പോൾ ഇത് പെട്ടന്ന് സാറ് അറേജ്മെൻറ്റ് ചെയ്തോണ്ട് നേരത്തെ ഇവർ സാർ പറയുന്നതിനെക്കാളും മുമ്പേ ഇവർ എന്നോട് സംസാരിച്ചിട്ട് ഞാൻ അത് തരാമെന്ന് പറയേം ചെയ്തു വേറെ കാര്യങ്ങളൊന്നും അല്ല അവരെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് സാറേ അവരുടെ ഒരു ഒരാളുടെ മോളുടെ ഉറപ്പീര് വേറൊരാളുടെ വീടിൻ്റെ കട്ടിള വെപ്പ് ആ വേറെ വേറൊരാൾക്ക് മകളെ പെണ്ണുകാണാൻ വരുന്നൊരു ചടങ്ങ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യം സാറേ ഒരിക്കലും നമുക്ക് അതിൻറ്റകത്തൊന്നും പറയാനും പറ്റുകേല സാറിനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാം പക്ഷേ നമ്മളൊരു മാനുഷിക കാരണം വെച്ചോണ്ട് നമ്മളത് ചെയ്യണം ഞാൻ പറയാം

ഓക്കേ ഓക്കേ സാറേ പറയാം ആ ആണ് സാറേ ആണ് ആണ് ആണ് സാറേ

ആണ് ആണ് സാറേ അയ്യോ ഞാനാണെങ്കിൽ പെട്ടന്ന് സാർ ഇങ്ങനെ ക്രമീകരിക്കുന്ന് വിചാരിച്ചില്ല തീർച്ചയായിട്ടും ഞാൻ എന്നാൽ സാറേ ഒരു കാര്യം ചെയ്യാം ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ തീർച്ചയായിട്ടും സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഞാൻ സാറിന് അറിയിപ്പിക്കാം

ഓക്കേ ഓക്കേ സാറെ ഓക്കേ തീർച്ചയായിട്ടും ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് സാറിനെ മറുപടി നാളത്തന്നെ മറുപടി തരാം ഓക്കേ ഓക്കേ സാറേ ശരി